ഇപ്പം മൃഗത്തിൻ്റെയൊക്കെ മാലിന്യം ഇപ്പം ഇപ്പം ഇപ്പം വളമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് ജൈവവളമാണ് നല്ല ഇപ്പം പച്ചക്കറികൾ ആയാലും എല്ലാം മരങ്ങളുടെ ചുവട്ടിലൊക്കെ ഇടാം പച്ചക്കറികളൊക്കെ നല്ലവണ്ണം കായ്ഫലം കൂടും അതുപോലുള്ള നല്ലൊരു വളമാണ് മൃഗങ്ങളുടെ പോലെ പശുവിൻ്റെ ചാണകമൊക്കെ എല്ലാവരും വെച്ച് ഉണക്കി പൊടിച്ച് ഉണക്കി ഇടുന്നവരും ഉണ്ട് പച്ചക്കിടുന്നവരും ഉണ്ട് ഉണക്കിപ്പൊടിച്ച് ഇടുമ്പോൾ ഭയങ്കര നല്ലൊരു ജൈവ വളമാണ് പിന്നെ ആട്ടിൻ്റെ കാഷ്ടം മുയലിൻ്റെ കാഷ്ടം കോഴിക്കാഷ്ടം ഇതൊക്കെ എല്ലാവരും പച്ചക്കറികളിലും പഴവർഗ്ഗ ചെടികളിലും അല്ലെങ്കിൽ പുഷ്പ ഫ്ലവർ ഉണ്ടാകുന്ന ചെടികളിലും പൂച്ചെടികളിലും അതുപോലുള്ള ചെടികൾക്കും എല്ലാവർക്കും ഇടുന്നതാണ് ആ നല്ല ജൈവ വളമാണ് ഇപ്പം ഇപ്പം ഒരു സമ്മിശ്രകൃഷി ആണെങ്കിൽ വീട്ടിൽ മൃഗങ്ങൾ ഇത് പോലെ കോഴി പിന്നെ പച്ചക്കറി എല്ലാം ഉണ്ടെങ്കിൽ വളമായിട്ട് ഇതിന് ഉപയോഗിക്കാം അത് നല്ലൊരു ലാഭകരമായിട്ടുള്ളൊരു ഇതാണ്